കൊറിയർ സെൻ്റർ എനിക്കൊരു സാധനം അവിടെ കൊണ്ട് ഇട്ടിട്ടു പോയി ഞങ്ങൾ ആരോടും വിളിക്കാതെ പറയാതെയാണ് ഇട്ടിട്ടു പോവുന്നത് ആ ഇത് അമ്പൂരി അമ്പൂരി അമ്പൂരി അമ്പൂരിയാണ് ഇന്ന് പന്ത്രണ്ടു മണിക്കാണ് പന്ത്രണ്ടു മണി സമയത്താണ് അവിടെ കൊണ്ടിട്ടത് ഞങ്ങളൊന്നും അറിയാതെ സാധനം കൊണ്ട് വച്ചിട്ട് പോയി അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ആ സാധനം പൊട്ടി പൊട്ടിയിട്ടുണ്ട് വണ്ടി കയറിയതാണോ എന്ന് അറിയത്തില്ല സാധനം പൊട്ടിക്കിടക്കുകയാണ് അപ്പം പുതിയ സാധനം ഞങ്ങൾക്ക് വേണം

പയ്യനെ വിളിച്ചു പയ്യനെ വിളിച്ചു പയ്യനെ വിളിച്ചു സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് പരാതിയായിട്ടാണ് പറയുന്നത് അതേ ഇനി വേണ്ടതോ ഇനി എന്താണ് നടപടി ആ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ആ ഇറ്റ്സ് ഓക്കെ ഓക്കെ അതെ എല്ലാ പൊട്ടലുമുണ്ടല്ലോ കുഴപ്പമില്ല ഇതിൻ്റെ അഡ്ഡ്രസ്സ് സാധനം ഉണ്ടായിരുന്നത് അതിനകത്ത് ഡിന്നർ സെൻ്റ് ഒരു ഡിന്നർ സെറ്റുണ്ടായിരുന്നു മൊത്തം പൊട്ടിപ്പോയി മൊത്തം പൊട്ടിപ്പോയി

ആ ഫോട്ടോ അയച്ചു തരാം ഫോട്ടോ അയച്ചു തരാം ആ ശരി അറിയില്ല അറിയില്ല അറിയില്ല ആ നമ്പറ് അതെ നമ്പറ് അയച്ചു തരാം ഓക്കെ ഓക്കെ ഓക് ഓഹ് കുറച്ച് തിരുവനന്തപുരം തിരുവനന്തപുരം

ഓക്കെ ഓഹ് അതിപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപയാവും ആ

ഓക്കെ ഓക്കെ ഓക്കേ വിട്ടുതരാം ഓക്കെ തേർട്ടീനോ വിളിച്ചു ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ

കമ്പനി ഡിലീറ്റ് ആക്കേണ്ടി വരുമോ കംപ്ലെയിൻ്റ് എഴുതി തരണോ കംപ്ലെയിൻ്റ് സെറ്റായി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഇവിടെ വന്നു മേടിക്കുമോ ഇവിടെ വന്ന് മേടിക്കുമോ

അയച്ചു തരണോ ഓക്കെ ഓക്കെ ഓക്കെ ആ ഇനി ഇനി ഉണ്ടാവരുത് ഇത് ഇത് ആ ഇനി ആ ഇനി ഇത് ആ ഇത് ഇനി ഉണ്ടാവാൻ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത് സംഭവിച്ചത് പോട്ടെ ആ ഇനി അങ്ങനെ ചെയ്യരുത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ